ആ പറഞ്ഞോ പറഞ്ഞോ ആരാണ് വക്കന് ചേട്ടനാണോ ആ ആ എന്താണ് വക്കന് ചേട്ടാ ആ അതേലോ അതേലോ അവിടെ ഇഷ്ടപോലെ ഐറ്റംസ് ഉണ്ട് വക്കന് ചേട്ടന് ബേക്ക് ചെയ്ത സാധനങ്ങളാണോ അതോ അല്ലാത്ത സാധനങ്ങളോ ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ആ അത് കുഴപ്പം ഒന്നും ഇല്ല നല്ല സാധനങ്ങൾ തന്നെയാണ് എന്റെ ബേക്കറിയിൽ ഉള്ളത്

ആ വരുന്നു ബേക്ക് ചെയ്തത് ആണെങ്കിൽ പപ്സ് ഉണ്ട് കേക്ക് ഉണ്ട് പിന്നെ വെജിറ്റബിള് പപ്സ് ഉണ്ട് മുട്ട പപ്സ് ഉണ്ട് അങ്ങനെ പിന്നെ വത്സന് ഉണ്ട് കോഴുക്കോട്ട ഉണ്ട് പിന്നേ പിന്നേ ആ അതൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യുന്നതാണ് ആ അതേ അതേ അതേ ആ ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം ഉണ്ട് ആ വയറ്റിൽ അസുഖം ഒന്നും ഉണ്ടാകുകയില്ല ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട് വില പപ്സിന് മുട്ട പപ്സിന് ഇരുപത് രൂപയാണ് വെജിറ്റബിള് പപ്സിന് ഇരുപത് രൂപയാണ് മീറ്റ് പപ്സിന് മുപ്പത് രൂപയാണ് പിന്നെ ആ മീറ്റ് പപ്സ് ആ ഏതാണ് വേണ്ടത് ആ ബീഫിനാണെങ്കില് കുറച്ചും കൂടെ വില കൂടും കേട്ടോ ആ കേക്ക് ഐറ്റംസ് ക്യാരറ്റ് കേക്ക് ഉണ്ട് പിന്നെ അല്ലാത്ത സാധാരണ ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ട് ആ പ്ലം കേക്ക് ഉണ്ട്

ആ ഏ ആ ആ ഈ ഷുഗറും ആ കടയിൽ തിരക്കുണ്ട് കുറച്ച് തിരക്കുണ്ട് പിന്നെ മധുരം കുറഞ്ഞ ഐറ്റംസ് പല സാധനങ്ങൾ ഉണ്ട് ബ്രെഡ് ഐറ്റംസ് അങ്ങനത്തേത് എല്ലാം ഉണ്ട് പിന്നെ മധുരം ഇല്ലാത്ത ഐറ്റംസ് പല കൂട്ടം ഉണ്ട് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി

ആ ബ്രെഡ് ഒക്കെ ഉണ്ട് ബ്രെഡ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഉണ്ട് ആ ആ ഏ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടത് എന്ന്

ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓര്ഡര് പിടിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് മടക്ക് പിന്നെ കേക്ക് പപ്സ് മറ്റെല്ലാം ഓര്ഡര് പിടിച്ചു ചെയ്യുന്നുണ്ട്

ആ ഹാ

ആ ആ ഓക്കെ ഓക്കെ എല്ലാം നോക്കിയിട്ട് വില വില ഞങ്ങളുടെ ബേക്കറിയിൽ വിലയൊന്നും അധികം ഇല്ല മറ്റുള്ള ബേക്കറിയിലത്തെ പോലെ വിലയൊന്നും ഇല്ല വിലയൊക്കെ കുറവാണ് ആ ഇല്ല ഇല്ല അങ്ങനത്തെ കുഴപ്പങ്ങൾ ഒന്നും ഇല്ല ആ ഓക്കേ ഓക്കേ താങ്ക്യൂ